സ്കൂൾ പഠന കാലത്ത് സ്കൂളിൽ നിന്നും ധാരാളം മിക്കവാറും സ്റ്റാമ്പുകള് കിട്ടാറുണ്ട് പത്തു പൈസയൊക്കെ ആയിരിക്കും ഒരു സ്റ്റാമ്പിൻ്റെ വില പൈസ കൊടുത്തു കഴിഞ്ഞാല് പലരും ആ സ്റ്റാമ്പുകളെല്ലാം വലിച്ചെറിഞ്ഞു കളയാറുണ്ട് കളയുന്ന സ്റ്റാമ്പുകള് ശേഖരിക്കുക അതെല്ലാം സൂക്ഷിച്ചുവയ്ക്കുക അങ്ങനെ സ്റ്റാമ്പുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടാക്കുക അത് ഒത്തിരി ഇഷ്ടമള്ള കാര്യമായിരുന്നു അപ്പോള് ഒരാള് ചെയ്യുന്നതുകണ്ടാല് അതോടുകൂടി മറ്റു പലരും അതുപോലെ സ്റ്റാമ്പുകള് ശേഖരിക്കാനും അതു സൂക്ഷിക്കാനും അതെങ്ങനെ അവസരോചിതമായിട്ട് മറ്റുള്ളവർക്കു കാണിച്ചുകൊടുക്കാനും ഒക്കെയുള്ളൊരു ഉത്സാഹവും അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമവും ഒക്കെ അന്നുകാലത്തു നടന്നുകൊണ്ടിരുന്നു അതുപോലെ നാണയങ്ങളാണെങ്കിലും ചെമ്പു നാണയങ്ങള് മുതല് ഓട്ടക്കാലണ മുതല് ചെമ്പുനാണയങ്ങള് ചക്രങ്ങള് ഒരു പൈസയുടെ ചെമ്പ് തുട്ടുകള് അതു കഴിഞ്ഞ് ഒരു പൈസ രണ്ടു പൈസ അഞ്ചു പൈസ പത്തു പൈസ അൻപത് ഇരുപത്തിയഞ്ചു പൈസ അൻപതു പൈസയുടെയൊക്കെ അലുമിനിയം നാണയങ്ങള് അത് അങ്ങനെ വിവിധ തരത്തിലുള്ള നാണയങ്ങള് പഴയ കാലത്തുള്ള നാണയങ്ങളെല്ലാം ഒരു വലിയ ശേഖരമായിത്തന്നെ എൻ്റെ കൈവശമുണ്ട് അത് ഇടയ്ക്കിടെ ഇളംതലമുറയെ ഇതു കാണിച്ചുകൊടുക്കാറുണ്ട് എടുത്തു നോക്കാറുണ്ട് അത് ഇന്ന് അതിൻ്റെ മൂല്യം എന്താണെന്നു ചോദിച്ചാൽ ഇന്നത്തെ ഇന്നതിന്ന് ഗവൺമെന്റ് തന്നെ പിൻവലിച്ച പൈസ അതാണ് അതുകൊണ്ട് ഇന്നതിന്നു യാതൊരു മൂല്യവും ഇല്ലെങ്കിലും അന്ന് ഒരുകാലത്ത് ആദിമ കാലങ്ങളില് ഇതു സർവസാധാരണമായിട്ടുള്ള പൈസ ആണ് അത് ഈ പൈസ കൊടുത്താണ് നമ്മള് സാധനങ്ങള് വാങ്ങുന്നത് എന്തിനു വേണ്ടി എന്തു വാങ്ങണമെങ്കിലും എന്തു കൊടുക്കണമെങ്കിലും ഈ നാണയങ്ങളും പൈസകളുമാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാലങ്ങള് മാറിയാണ് കാലങ്ങൾ മാറി മാറി വന്നപ്പോള് ഇപ്പോള് രൂപകളായി നാണയങ്ങളും ഉണ്ടെങ്കിലും ഒരു രൂപ അഞ്ചു രൂപ പത്തു രൂപ ഇരുപതു രൂപ അങ്ങനെ തുട്ടുകളുണ്ട് ബാക്കിയെല്ലാം നോട്ടുകളാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള നോട്ടുകളും കറൻസികളും ആണുള്ളത് ഓരോ നാടിനും അവരവരുടെ എന്നാല് അവരവരുടെ നാണയങ്ങള് പ്രത്യേകമായിട്ടുണ്ട് യൂറോ അങ്ങനെ വിവിധ തരത്തിലുള്ള നാണയങ്ങള് ഓരോ പ്രദേശം ഓരോ നാട്ടിലും അവരുടെ അവര് നാടിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചായിരിക്കാം ഓരോ നാട്ടിലും വിവിധ തരത്തിലുള്ള നാണയങ്ങള് ആണ് മൂല്യ പലതിനും പലതരത്തിലുള്ള മൂല്യമാണ് അങ്ങനെ വിദേശങ്ങളിലുള്ള നാണയങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോള് അവയ്ക്കു മൂല്യം വർ കൂടുതലോ കുറവോ ഒക്കെ അനുഭവപ്പെടാറുണ്ട് അങ്ങനെ നാണയങ്ങൾ വിവിധ തരത്തിലുള്ള നാണയങ്ങള് ഇന്നു നാണയങ്ങൾ ഒന്നും അങ്ങനെ അധികമാരും നാണയങ്ങളായിട്ടില്ല എല്ലാം കറൻസി ആയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇളംതലമുറയ്ക്ക് ഇന്നത്തെ പുതിയ തലമുറയ്ക്കു പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഒന്ന് കാണിച്ചുകൊടുക്കുന്നതിനുവേണ്ടി മാത്രം ഇതു നമുക്കു സൂക്ഷിച്ചുവയ്ക്കുകയും വല്ലപ്പോഴും ഒക്കെ അവരെ കാണിച്ചു കൊടുക്കാനും നമുക്കു പരിശ്രമിക്കാം അതുപോലെ കല്ലുകള് വിവിധ തരത്തിലുള്ള കല്ലുകള് കൊത്തുപണി ചെയ്ത കല്ലുകള് നദികളിലൂടെ ഒഴുകിവരുന്ന കല്ലുകള് അതുപോലെ വജ്രം മാണിക്യം മുത്ത് അല്ല വജ്രം മുത്തുകള് വൈരക്കല്ല് അങ്ങനെ വിവിധ തരത്തിലുള്ള കല്ലുകള് ഉണ്ട് അത് അത്ര വില വിലയേറിയ മൂല്യമേറിയ കല്ലുകളും നിസ്സാരം നമ്മള് ആറ്റിൽനിന്ന് തോട്ടിൽനിന്നൊക്കെ പെറുക്കിയെടുക്കാവുന്ന കല്ലുകളും അങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള കല്ലുകള് ആകർഷണീയമായ കല്ലുകള് അതും ശേഖരിച്ചുവയ്ക്കുക ഒരു നല്ല ശീലമാണ് അതും അങ്ങനെ നാണയങ്ങളും സ്റ്റാമ്പുകളും കല്ലുകളും ഒക്കെയായിട്ട് ഒരു വലിയ ശേഖരം തന്നെ പലരുടെയും കൈവശമുണ്ട് അതൊക്കെ പഴമയുടെ പുതുമ വിളിച്ചറിയിക്കുന്ന ഈ ഇത്തരം നല്ല നല്ല കാര്യങ്ങള് ചെയ്ത് പഴമയെ പുതുമയിലേക്കു കൊണ്ടുവരുവാനായിട്ടു ശ്രമിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്